പിന്നെ പ്രദേശത്തെ സ്കൂള്കളിൽ ഏറ്റോം നല്ല സ്കൂള് ലിറ്റിൽ ഫ്ലവറ് വിദ്യാനികേതൻ മുണ്ടത്താനം ആണ് പിന്നെ കൊളത്തൂറ് കൊളത്തൂർ സ്കൂള് പിന്നെ സിറ്റാഡൽ പിന്നെ സെൻജോർജ് ഹൈ സ്കൂൾ പിന്നെ ക്രിസ്തുരാജ അങ്ങനെ കുറെയുണ്ട് പക്ഷെ എനിക്കേറ്റോം ഇഷ്ടമുള്ള സ്കൂള് ലിറ്റിൽ ഫ്ലവർ വിദ്യാനികേതൻ മുണ്ടത്താനം അത് നല്ല വിദ്യാഭ്യാസം നിലവാരമുള്ള സ്കൂളാണ് എല്ലാം എല്ലാ കുട്ടികൾക്കും എല്ലാം നല്ല എല്ലാവരും നല്ല മികച്ച വിദ്യാഭ്യാസം നേടീട്ടുള്ളവ ഉള്ളവരാണ് ആ സ്കൂളിൽ എല്ലാ കുട്ടികളും പോകുന്നതിൽ വെച്ച് ചെല്ലുന്ന കുട്ടികളെല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നിലവാരമുള്ള കുട്ടികളാണ് കുട്ടികളുടെ പെരുമാറ്റം ടീച്ചർമാർ ടീച്ചേഴ്സ് സാറ്മ്മാർ എല്ലാവരും നല്ല നല്ല അറിവുകൾ പകർന്ന് കൊടുക്കുന്ന ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല നല്ല വിദ്യഭ്യാസം സ്ഥാപനങ്ങൾ ആണ്